ഞാൻ ഫ്രീലാൻസറായി വെഡിങ് ഫോട്ടോഗ്രഫി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് കല്യാണ വർക്കുകൾ എടുത്ത പരിചയവുമുണ്ട് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വന്നത് എൻ്റെ പിതാവ് ഒരു ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫെർ ആയിരുന്നു അപ്പോൾ എനിക്കും അതേ ഒരു പാഷനും ഒരു ഇൻ്ററസറ്റും തോന്നിയത് കൊണ്ട് ഞാൻ പാർട്ട് ടൈമായിട്ട് അത് എറ്റെടുത്തു എൻ്റെ തൊഴിലിൽ എനിക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടത് ഞാൻ അസിസ്റ്റന്റ് ഫോട്ടോഗ്രാഫറായി പോവുമ്പോൾ വെഡിങ് ഇവൻറ്സിന് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പെട്ടന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു വിവാഹം വെഡിങ് പാർട്ടീസിൻ്റെ അതുകഴിഞ്ഞ് റിസപ്ഷൻ തിരിച്ച് പാലക്കാട് വരികയും അവിടുത്തെ ഒരു ഓഡിറ്റോറിയ സമുച്ചയത്തിൽവെച്ച് വൈകുന്നേരം റിസപ്ഷൻ ഏർപ്പാട് ചെയ്തിരുന്നു ഞാൻ ഒരു വെഡിങ് സ്റ്റുഡിയോ നടത്തുന്ന ഒരാൾ എന്നെ ഹെൽപ്പറായി വിളിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ വെഡിങ് ഇവന്റ്സിന് പോയത് അദ്ദേഹം അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന വീഡിയോഗ്രാഫർ അദ്ദേഹവും ഫോട്ടോഗ്രാഫറും കൂടി വിവാഹത്തിന് വിവാഹം നടത്താനിരുന്ന കുടുംബത്തിൻ്റെ ആളുകൾ ഒരു മദ്യസൽക്കാരത്തിന് വിളിക്കുകയും ഇരുവരും അതിൽ പങ്കെടുക്കുകയും നന്നായി അത്യാവശ്യം മദ്യപിക്കുകയും ചെയ്തു അന്ന് ഞാൻ ക്യാമറയും വീഡിയോ ക്യാമറയുമൊക്കെ വർക്കെടുത്ത് പഠിക്കുന്നതേ ഉളളൂ എന്നാൽ ഞാൻ വീഡിയോ ക്യാമറ സ്റ്റാന്റിൽ വെക്കുകയും സ്റ്റിൽ ക്യാമറ എൻ്റെ തോളിലിട്ട് ആ ഗ്രൂപ്പ് ഫോട്ടോസ് കംബ്ലീറ്റ് റിസപ്ഷൻ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ ചിത്രങ്ങളും പകർത്തുകയും അറ്റ് എ ടൈം വീഡിയോയും ഫോട്ടോയും എടുത്ത് ആ പ്രശ്നം തീർക്കുകയും ചെയ്തു എന്നോട് വീഡിയോഗ്രാഫറിനെക്കുറിച്ചും ഫോട്ടോഗ്രാഫറിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഞാൻ എക്യുപ്പെന്റ്സിലൊരൂ കേടുപാടുണ്ടായി അത് നേരെയാക്കാൻ അടുത്തുള്ള ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞാനാ രണ്ട് പേരെയും മാന്യമായ രീതിയിൽ തടിയൂരി ഇങ്ങനെയൊരു ഒരു പ്രശ്നം പെട്ടന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതല്ലാ ഒരുപാട് സാധനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പെട്ടന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടന്ന് മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു കാര്യമാണ് അത് വർക്ക് ബെയ്സിൽ മാത്രം അതല്ലാണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ വെഡിങ് ക്യാമറ പെട്ടന്ന് സ്റ്റില്ലായി വർക്കിങ് അല്ലാത്ത ഒരു കണ്ടീഷനുണ്ടായി പെട്ടിട്ടുണ്ട് താലി കെട്ടണ സമയത്ത് അതെങ്ങനെക്കെയോ ബാറ്ററി ഊരി സെറ്റപ്പാക്കിയപ്പോൾ ശരിയായി അങ്ങനെ പെട്ടന്ന് ഇലക്ട്രോണിക്സ് ബാ ഇലക്ട്രോണിക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് കാര്യങ്ങൾ അപ്പോൾ അത് അങ്ങനത്തെയൊരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ളൊരു ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പെട്ടന്ന് എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ